പല വിഭവങ്ങൾക്കും അതിന് അനുസരിച്ചുള്ള തന്ത്രങ്ങൾ ഉണ്ടാവും ഇപ്പോൾ എന്തെങ്കിലും വറക്കാനോ പൊരിക്കാനോ അങ്ങനെ ആണെങ്കിൽ അതിപ്പോൾ ഒരു മീനോ അല്ലെങ്കിൽ മീറ്റോ ഇറച്ചിയോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ഒരു നുള്ള് അരിപ്പൊടി കൂടി ഇട്ടു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് കൂടും അതുപോലെ നമ്മൾ എന്തെങ്കിലും പോ തിളക്കാൻ ആണെങ്കിൽ ഇപ്പോൾ പാലാണ് വെള്ളം തിളക്കാൻ പെട്ടന്ന് തിളക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് മൂടി വച്ച് മൂടി വച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തിളയ്ക്കും അതുപോലെ നമ്മൾ പല തരത്തിലും പല വിഭവങ്ങൾക്കും പല കൈപ്പൊടികളാണ് ഉപയോഗിക്കുക പ്രത്യേകം പ്രേത്യകം ഉണ്ട് അത് പോ പാൽ ഒഴിച്ചു വയ്ക്കുന്ന മീൻ കറിക്കും പാൽ ഒഴിക്കാതെ വയ്ക്കുന്ന മീൻ കറിയ്ക്കും പല രണ്ടും വ്യത്യാസമുണ്ട്